ഇന്ന് നമ്മലളുടെ യുവജനങ്ങൾ കൂടുതലും നമ്മുടെ യുവജനങ്ങൾ പാരമ്പര്യ നൃത്ത രീതികൾ പഠിക്കാൻ താൽപ്പര്യം കാണിക്കുന്നുണ്ട് കാരണം പണ്ടു കാലങ്ങളിൽ നമുക്ക് മേഖലകൾ കുറവായിരുന്നു ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് അതുപോലെ കൈരളി അമൃത അങ്ങനെ ചാനലുകൾ കൂടുതൽ വന്നത് കൊണ്ട് അവരേറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നത് നമ്മുടെ കുട്ടികളിലെ കുട്ടികളിലുള്ള കലകളെ വികസിപ്പിക്കുക എന്നത് കാരണം ഇന്ന് മൊത്തം ഈ ഏതൊക്കെ പറഞ്ഞാലും ഈ ചെറുപ്പക്കാർ സെറ്റുകൾ മുഴുവൻ ഇന്നും പരമ്പരാഗതമായിട്ടുള്ള ഈ പാരമ്പര്യ രീതികളിലെ നൃത്തങ്ങൾ പഠിക്കാനും അവയ്ക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാനും അതൊരു പ്രൊഫഷനായിട്ട് അതൊരു അവരുടെ ജോലിയായിട്ട് കണ്ടെത്താനും വളരെ അധികം താൽപ്പര്യം കാണിക്കുന്നുണ്ട് കാരണം ഏത് മേഖലയിൽ ചെന്നാലും ഡാൻസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ താരത്തിലുള്ള ഡാൻസിലും പിള്ളേർ ഇന്ന് റെഡിയാണ് നമ്മുടെ സ്കൂളുകൾ പോലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവർ നല്ല രീതിയിൽ അതിനെ കോമ്പറ്റിഷൻസൊക്കെ നടത്തി നല്ല നല്ല കലാകാരന്മാരെ സൃഷ്ടിക്കുന്നുണ്ട് അവർക്ക് ഇന്ന് ഒരു തരത്തിലും വേദികളില്ല എന്നുള്ള സങ്കടമില്ല കാരണം ഒന്നല്ലെങ്കിൽ മറ്റൊരു വേദികൾ അവർക്ക് വേണ്ടി ഇങ്ങനെ തുറന്ന് വച്ചിരിക്കുകയാണ് അതിലേറ്റവും കൂടുതൽ മുഖ്യധാരയിലെത്തിയിരിക്കുന്ന നമ്മുടെ ടെലിവിഷൻ ചാനലുകളാണ്